ഹലോ ഡോക്ടറല്ലേ ഡോക്ടറേ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പല്ല് വേദനയാണ് അപ്പോള് രാത്രിയില് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊരു പ്രതിവിധി പറയാമോ ഞാന് ഇപ്പോള് ഈ രണ്ട് ദിവസമായിട്ട് പെയിൻ കില്ലര് കഴിക്കുന്നുണ്ട് ആ പല്ലിന് പൊട്ടലെന്നുവെച്ചാല് ഞാനൊരൂ ഒരു മൂടി തുറന്നതാണ് പല്ല് വെച്ച് അപ്പോളളൊരു ചെറിയൊരു പൊട്ട് വന്നു അപ്പോള് ആ ചെറിയൊരു പൊട്ടുണ്ട് വേറെ വേറെ കാണിച്ചില്ല എവിടെയും അത് വല്ല ഇവിടെ അടുത്തൊന്നും പല്ലിൻ്റെ ഡോക്ടേഴ്സില്ല കുറച്ച് ദൂരം പോകണം അതാണ് പല്ല് ഇളകിയിട്ടില്ല പല്ലിനൊരു ചെറിയൊരു ക്രാക്ക് പോലെ വീണിട്ടുണ്ട് അപ്പോള് ഇവിടെ അടുത്തൊരു ഒരു മെഡിക്കൽ ഷോപ്പില് പോയപ്പോളൊരു പച്ച ഗുളിക പെയിൻ കില്ലര് തന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അത് അത് കഴിച്ചിട്ടും കുറവില്ല വേറെ മരുന്നൊന്നുമില്ല ഓക്കെ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കില് ഞാന് നോട്ട് ചെയ്യാം

അല്ലെങ്കില് ഡോക്ടറെനിക്ക് മെസേജിട്ടാലും മതി ആ മതി അത് മതി മൂന്നു ദിവസം ആ രണ്ട് നേരമാണോ ഓക്കെ ഓക്കെ ഡോക്ടര് ശരി ഓക്കെ ഡോക്ടർ താങ്ക് യൂ